ട്യൂഷന് അയക്കുന്നുണ്ട് സ്കൂളിൽ പഠിപ്പിച്ചത് തീരാത്തത് കൊണ്ട് നമ്മൾ പുറമെ ട്യൂഷന് ചേർക്കുന്നു അപ്പോൾ അവിടെ അത് തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നേന്ന് റിപ്പീറ്റ് ആക്കുന്നത് ഇപ്പം നല്ല വണ്ണം പഠിക്കാനുണ്ടാവുമല്ലൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതുകൊണ്ട് നമ്മൾ ട്യൂഷന് ചേർക്കുന്നത് ട്യൂഷന് കൊല്ലത്തേക്ക് പന്ത്രണ്ട് ആയിറുപ്യാ അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഇത് സബ്ജെക്റ്റ് കണക്കാക്കിയിട്ട് ഓരോരോ ടീച്ചർമാർ സബ്ജെക്റ്റിന് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത്തൊന്നോളം എല്ലാം വരുന്നുണ്ട് ഓരോരോ കുഞ്ഞിക്ക് അപ്പം എൻ്റെ രണ്ട് കുഞ്ഞ് ട്യൂഷന് പോകുന്നുണ്ട് അത് സ്കൂളിൽ പഠിപ്പിച്ച അതേ ബുക്കിന് അതേ അതേ ക്ലാസ് അയിനാന്നാ റിപ്പീറ്റക്കുന്നത് അപ്പോൾ റിപ്പീറ്റാക്കുമ്പോൾ ഇവിടെ ഇവിടേയും കുടി അതേ ക്ലാസ് കേൾക്കുമ്പോൾ ട്യൂഷൻ്റെ അടുത്ത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടാണ് ട്യൂഷന അയക്കുന്നത് അപ്പോൾ ഓരോ ഓരോ ഒരു കുഞ്ഞിരടുത്തിരുന്നിറ്റാന്ന് പഠിപ്പിക്കണ്ടത് ട്യൂഷനെന്ന് പറയുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചാലേ മക്കൾക്ക് മനസ്സിലാകുള്ളു അല്ലാതെ ഇപ്പം സ്കൂളിൽ നിന്ന് നാൽ പ്പത് പിള്ളേരുണ്ട് പറഞ്ഞിട്ട് നാൽപ്പത് പിള്ളേർക്കും ഒന്നിച്ചിട്ട് വായിച്ചിട്ട് പറഞ്ഞ് കൊടുക്കുന്നത് അതേ പോലെ ഇപ്പം ട്യൂഷൻറ്റടുത്ത് ഇരുപത് പിള്ളേരുണ്ടാവും ഇരുപത് പിള്ളേർക്ക് മുക്കാൽ മണിക്കൂറിൻ്റെ ക്ലാസ്സായിരിക്കും അപ്പോൾ ഓരോ ഓരോ കുഞ്ഞിൻ്റെ അടുത്തിരുന്നിട്ടവർ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കാം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ട്യൂഷന് അയക്കുന്നത് അങ്ങനെ ഒരു അഞ്ച് മിനുറ്റ് പത്ത് മിനുറ്റ് ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഒരു ടീച്ചറ് ഇരുന്നെങ്കിൽ അവർക്ക് അത് അത്രയും മനസ്സിലാവുമല്ലോ അങ്ങനെയാണ് നമ്മൾ ട്യൂഷന് അയക്കാനുള്ള കാരണം അത് ട്യൂഷന് അയച്ചിട്ടാകുമ്പോൾ അവിടെ ഓരോ ഓരോ കുഞ്ഞിനെക്കൊണ്ട് വായിപ്പിക്കും അതുപോലെ സ്കൂളിലാകുമ്പോൾ അവർക്ക് അങ്ങനെ പഠിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ ഓരോ ഓരോ കുഞ്ഞിൻ്റെ അടുത്ത് അപ്പോൾ ട്യൂഷൻ്റെ അടുത്താകുമ്പം ഓരോ ഓരോ കുഞ്ഞിന് നല്ല കെയർ ആക്കും ടീച്ചർമാർ ട്യൂഷൻ ടീച്ചറാകുമ്പോൾ അതിന് നമ്മൾ സ്കൂളിലത്തെ സ്കൂളിലേക്കല്ലാതെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടല്ലേ ചേർക്കുന്നത് നല്ല പൈസ ആകുന്നതല്ലേ ട്യൂഷനാകുമ്പോൾ ഒരു കുഞ്ഞിക്ക് ഒരു സബ്ജെക്റ്റിന് ഓരൊ ഒരു ടീച്ചറ് മുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ വാങ്ങുന്നുണ്ട് ഓരോ ഒരു ടീച്ചർമാർ നാലഞ്ച് സബ്ജെക്റ്റ് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഇത്ര ഒരു മാസത്തേക്ക് ഒരു ആയിരത്തി എട്ട് നൂറ് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ചെറിയ ക്ലാസ്സാണെങ്കിൽ ഒരു അഞ്ഞൂറ് അറുനൂറ് റുപ്യാ മേടിക്കും ഓരോ ഓരോ ടീച്ചർമാർ അല്ലാത്ത കുറച്ചും കൂടി പഠിച്ച ടീച്ചർമാറാണെങ്കിൽ ഇപ്പോൾ ആയിറുപ്യക്ക് അഞ്ഞൂറുപ്യക്കൊന്നും ട്യൂഷനെടുക്കുന്നില്ല രണ്ടായിരം റുപ്യെല്ലാം ആണ് ഒരു മാസം ആകുമ്പോൾ മാസത്തേക്ക് രണ്ടായിരം റുപ്യെല്ലാം മേടിക്കുന്നുണ്ട് അങ്ങനെ മേടിക്കേണ്ടി വരുന്നു കുറവിൽ ആകുന്നില്ല എന്തായാലും അപ്പം ഗവണ്മെൻറ്റ് സ്കൂളിൽ ചേർത്ത പിള്ളേരാകുമ്പോൾ അവിടെ ഒരു ക്ലാസ് റൂമിൽ അറുപത് പിള്ളേരെല്ലാം ഉണ്ടാകുന്നു അറുപത് പിള്ളേർക്ക് പറഞ്ഞ് കൊടുത്തിട്ടാകുമ്പോൾ അതൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ ട്യൂഷന് ചേർക്കുന്നെന്നുല്ലു ട്യൂഷനിൽ മാറ്റമുണ്ട് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നല്ല മാറ്റമുണ്ട് പഠിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പിന്നെ സ്കൂളിൽ പഠിച്ചത് തന്നെ ട്യൂഷനും ആകുമ്പോൾ അവ ർക്ക് വലിയ താൽപ്പര്യമില്ലാത്ത പിള്ളേറാകുമ്പോൾ പഠിക്കുന്നത് കുറവല്ലേ അല്ലാതെ പഠിക്കുന്നത് പിള്ളേറാകുമ്പോൾ നല്ല പഠിക്കും ഇത് ട്യൂഷന് നല്ലതാണ് ഇപ്പ നമ്മൾ ഫോണിൽ ഓൺലൈനായിട്ട് ട്യൂഷനെടുക്കുന്നുണ്ട് അതിന് ചേർത്തിട്ടുണ്ട് അതും നല്ല ക്ലാസ് തന്നെ ഇപ്പോൾ നയൻറ്റി പ്ലസ് പറഞ്ഞിട്ട് അത് നല്ല ക്ലാസ് അതുപോലെ ബൈജൂസ് അതും നല്ല ക്ലാസ് അതിൽ തന്നെ ക്ലാസ്സിൽ തന്നെ വിവരിക്കുന്നത് അവിടെ എന്ത് പഠിപ്പിച്ചു അത് ഇങ്ങനെ ക്വസ്റ്റിൻ ഇടും കുറേ ക്വസ്റ്റിന് ഇപ്പോൾ അതിനെക്കാളും നല്ലത് പോയിട്ട് ട്യൂഷൻ സെൻറ്ററിൽ ചേർക്കുന്നതാന്ന് ഓൺലൈനാകുമ്പോൾ അതിൽ തന്നെ അവർ ടൈപ്പ് ചെയ്തിട്ട് ചോദ്യം കൊടുക്കും അപ്പം അവർക്ക് അതിൽ ആൻസാറുണ്ടാവും നാലഞ്ച് ആൻസർ കൊടുത്തിട്ടാകുമ്പം അതിൽ ഒരു ആൻസറ് തൊട്ടാൽ മതി അപ്പോൾ അത് ശരിയായിക്കോളും പക്ഷേ നമ്മൾ ട്യൂഷൻ നമ്മൾ സെൻറ്ററിൽ പോയിട്ടാകുമ്പോൾ അവിടെ ചോദ്യം ബോർഡിലെഴുതും അപ്പം ആ ചോദ്യത്തിനുള്ള ആൻസറ് അതിവർ കൈ കൊണ്ട് എഴുതണം അപ്പന്നവെരിക്ക് സെപല്ലിങ് മിസ്റ്റേക്ക് എല്ലാം മനസ്സിലാകുന്നത് ആ സമയത്താണ് മനസ്സിലാകുന്നത് അല്ലാതെ ഈ ഫോണിലാകുമ്പോൾ അതൊന്നും മനസ്സിലാകുന്നില്ല സെപെല്ലിങ്ങ് മിസ്റ്റേക്ക് ഇല്ലാലോ അതിലൊന്ന് ടൈപ്പ് ആക്കിയിട്ട് വന്നിട്ടുണ്ടോന്ന് അപ്പോൾ ആൻസറ് ചോദ്യം വായിക്കും ആൻസർ ടിക്ക് ആക്കും അപ്പം അത് ശരിയാകും അപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ അങ്ങനെ അല്ലാലോ ട്യൂഷൻ സെൻറ്ററിൽ ടീച്ചറ് ചോദ്യം കൊടുക്കും ആ ചോദ്യത്തിന് അല്ലെ ആൻസറ് അവർ എഴുതണം അപ്പം എഴുതുമ്പോൾ സ്പെല്ലിങ്ങെല്ലാം മിസ്റ്റേക്ക് വരും അപ്പം അതിന് തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂഷനൊക്കെ ചേർക്കുന്നത് അപ്പോൾ സ്കൂളിലാകുമ്പം അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ ടീച്ചർമാർക്ക് അറുപത് പിള്ളേറെല്ലാണ്ടാകുമ്പം അപ്പം ട്യൂഷൻ്റെടുത്ത് ഒരു ഇരുപത് പിള്ളേരാകുമ്പം ഈ വേർഡ്സെല്ലാം തെറ്റുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കും എന്താണ് പറഞ്ഞെങ്കിൽ അവർക്ക് അറിയൂ ഈ കുഞ്ഞിൻ്റെ ഏത് സബ്ജെക്റ്റിലാണ് കുഞ്ഞിക്ക് തെറ്റുന്നത് അപ്പം അവർക്ക് പെട്ടെന്ന് കണ്ട് പിടിക്കാൻ പറ്റും അപ്പം അവർ ആ സ്പെല്ലിങ്ങെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ ചേർക്കുന്നത് ട്യൂഷനിൽ പോയെങ്കിൽ നല്ലത് തന്നെ നല്ലൊരു പഠിക്കുന്നത് ഒരു പഠിപ്പ് എന്ത് തന്നെ ആണെങ്കിലും സ്കൂളിലിങ്ങനെ പഠിച്ചു അതിന് തന്നെ വീണ്ടും കേൾക്കുമ്പോൾ പിള്ളേർക്ക് ആ നമ്മൾ ഈ സബ്ജെക്റ്റ് ഫുള്ള് കേട്ടിനി അപ്പം അത് തന്നെ ഇവിടേയും പഠിപ്പിക്കുമ്പം അവർക്ക് ഒരു പഠിക്കാനുള്ള ഇത് അറിയുന്നത് ട്യൂഷൻ്റെ അടുത്ത് അതാണ് ട്യൂഷന് പോകുന്ന ഉദ്ദേശം പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് തന്നെ റിപ്പീറ്റാക്കുന്നെങ്കിലും സ്കൂളിലും കേട്ടു ട്യൂഷൻ്റെ അടുത്തും കേട്ടു അപ്പം ട്യൂഷൻ്റെ അടുത്ത് അതിനെ ടീച്ചറ് നന്നായിട്ട് വിവരിക്കുന്നുണ്ടാവും അപ്പം അതവർ അവർക്ക് പിള്ളേർക്ക് മനസ്സിലാകും ട്യൂഷൻ്റെ അടുത്ത് പറഞ്ഞതാണ് മനസ്സിലാകുന്നത് ഇപ്പം സ്കൂളിലൊക്കെ കുറേ പിള്ളേരടുത്ത് ഇരുന്നിട്ട് പഠിച്ചിട്ടാകുമ്പോൾ അതവർക്ക് എന്താണ് അറിയുന്നില്ല അപ്പം അത് തന്നെ വീണ്ടും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂഷന് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം ട്യൂഷൻ്റെ അടുത്ത് അതെല്ലാം നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് പിള്ളേർക്ക് അതുകൊണ്ടാണ് ട്യൂഷന് ചേർക്കുന്നത് നല്ല പൈസ ആവും ട്യൂഷന്നാമ്പോ രണ്ട് കുഞ്ഞി എല്ലാം ഉണ്ടങ്കിപ്പോ സ്കൂളിലല്ലാതെ ഇപ്പോൾ ഗവണ്മെൻറ്റ് സ്കൂളിലല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ അവിടെ പൈസ കൊടുക്കണം അതു പോല തന്നെ ഇപ്പോൾ രണ്ടാൾ ട്യൂഷന് ചേർക്കുന്നുണ്ടെങ്കിൽ നേരെ ഒരു അഞ്ചായിരം റുപ്യാ ഫീസ് വേണ്ടി വരുന്നു എന്നാലും നമ്മൾ ട്യൂഷന് അയക്കുന്നുണ്ട്